ആ മാഡം ഒരു ഇൻഷുറൻസിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണേ നമ്മുടെ കയ്യിൽ പുതിയ ഒരു ഇൻഷുറൻസ് ഉണ്ട് ആ അപ്പോൾ ഫുൾ ലൈഫിൻ്റെ ഒരു ഇൻഷുറൻസ് ആണ് പുതിയ ഒരു ഇൻഷുറൻസ് ആണ് ജീവൻ എന്നാണ് പദ്ധതിയുടെ പേര് ഇൻഷുറൻസിൻ്റെ ജീവൻ എന്നാണ് ഇൻഷുറൻസിൻ്റെ പേര് നമ്മുടെ ഗവൺമെൻറ് ഇൻഷുറൻസ് തന്നെയാണ് ഗവൺമെന്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പദ്ധതി തന്നെയാണ് ആ അതേല്ലേ ഓക്കെ അപ്പം നല്ല ഒരു ടൈമിലാണ് ടൈമിലാണ് കാണാൻ പറ്റിയത് അപ്പോൾ നല്ല ഒരു ഇൻഷുറൻസ് തന്നെയാണ് നമ്മുടെ ലൈഫിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഓക്കെ നമുക്ക് ആ പ്ലാൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇത് പ്ലാൻ ഇരുപത് വയസ്സ് തൊട്ട് അൻപത് വയസ്സ് വരെയാണ് അതിൻ്റെ ചേരാൻ ആ പ്രായം എന്ന് പറയുന്നത് ചേരാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് അടവ് വരുന്നത് മൊത്തം ഇരുപത് ലക്ഷത്തിൻ്റെ ആണ് ടോടൽ നമുക്ക് ക്ലെയിം കിട്ടുക ആ ക്ലെയിം കിട്ടുക അപ്പോൾ മാഡം പിന്നെ ഒരാൾ നോമിനിയും വേണം ഇതിന് നമുക്ക് അങ്ങനെയാണ് ആ അങ്ങനെ ഇല്ല ആരെ വേണേം വെക്കാം നമുക്ക് നോമിനി ആയിട്ട് ആ നമുക്ക് അതിൻ്റെ പേപ്പ പേപ്പർ വർക്ക് തരുന്നതേ ഉള്ളൂ ഇതിനിപ്പോൾ മാസം ആറ് മാസം കൂടുമ്പോഴാണ് പേയ്മെന്റ് അടവ് വരുന്നത് ഇൻഷുറൻസിൻ്റെ ആറ് മാസം അതിപ്പോൾ ഇരുപത് വയസ്സു തൊട്ട് അൻപത് വയസ്സുവരെയാണ് ഇതിൻ്റെ പ്രായത്തിൻ്റെ ഏത് ഇടയിൽ ഈ പ്രായത്തിലുള്ളവർ ചേർന്നാലും ഇതാണ് അടവ് വരുന്നത് ഇതിൻ്റെ ഇടയിൽ ഈ അറുപത് വയസ്സിൻ്റെ ഇടയിൽ നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇരുപത് ലക്ഷം അപ്പം തന്നെ കിട്ടും കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ ക്ലെയിം വരുന്നത് പിന്നെ നിങ്ങൾക്കിപ്പോൾ മരണപ്പെട്ടില്ല എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും പറ്റി ഇരിക്കൂയാണെങ്കിൽ മരണപ്പെട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി കിട്ടും പത്ത് അങ്ങനെയാണ് ഇൻഷുറൻസ് വരുന്നത് അതേപോലെ ഈ അറു അൻപത് വയസ്സു കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്കത് ഒന്നല്ലെങ്കിൽ ഫുള്ള് ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റും ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറ്റ് എ ടൈം എടുക്കാൻ പറ്റും അല്ലായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാസം മാസം അങ്ങനെ പെൻഷൻ പോലെ ഒരു ക്ലെയിം ആയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ആറ് മാസം കൂടുമ്പോൾ ആയിരം ആയിരം വെച്ച് അടക്കണം അപ്പോൾ വർഷത്തിൽ രണ്ടായിരം രൂപ വരും

അപ്പോ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ മാസം ആ മാസം മാസം എങ്ങനെ ആയാലും അടക്കാം പക്ഷെ ഈ ആയിരം ഇതാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് മാസം ഇരുന്നൂറ് അങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾ വെച്ചാൽ മതി അല്ലെങ്കിൽ എനിക്ക് അയച്ച് തന്നാലും മതി പക്ഷെ ആറ് മാസം കൂടുമ്പോഴാണ് ശരിക്കിലും അടവ് വരുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അടക്കാം ഈ ആറ് മാസത്തിനുള്ളിൽ അടക്കാം അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് കയറുന്നത് ഈ ഇരുന്നൂറ് നിങ്ങൾക്ക് എപ്പോഴാണോ പൈസ കിട്ടുന്നത് അതിന് അനുസരിച്ച് ഇട്ടാലും നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ആയിരിക്കും കയറുക അത് ആ അത് നിങ്ങൾക്ക് ആ മ് ഇത് ചേരാൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് അതേപോലെ രണ്ട് ഫോട്ടോ പാൻ കാർഡ് ബാങ്ക് പാസ്സ് ബുക്ക് ഇതൊക്കെ പിന്നെ നോമിനീൻ്റെ ഇതേപോലെ നോമിനീൻ്റെയും ഈ സംഭവങ്ങളൊക്കെ വേണം ഓക്കെ അപ്പം ഇതൊക്കെ എപ്പം തരാൻ പറ്റും നിങ്ങൾക്ക് കോപ്പിയൊക്കെ ഇപ്പം കയ്യിലുണ്ടെങ്കിൽ ഇപ്പം തന്നാൽ റെഡി ആക്കാം ആ ശരി അങ്ങനെ ആണെങ്കിൽ ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ വരുമ്പോഴേക്ക് എടുത്ത് വെച്ചാലും മതി ഓക്കെ ശരി